ഉൾനാടൻ പ്രദേശത്തെ പ്രാദേശിക കാർഷിക വ്യവസായത്തെ പിൻതാങ്ങാനായി സ്ഥാപിച്ചിട്ടുള്ള സംരംഭങ്ങൾ കുറിച്ച് പറയുകയാണെങ്കിൽ ഉൾനാടൻ പ്രദേശം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ കോട്ടയം പ്രദേശത്ത് ആയിരിക്കുമ്പോൾ നമ്മൾ ഉൾനാട് പ്രദേശം എന്ന് പറയുന്നത് കുട്ടനാട് ഏരിയ ആണ് ഈ ഏരിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നെല്ല് ഉൽപ്പാദനം അതോടൊപ്പം തന്നെ മത്സ്യകൃഷി എന്നിവയൊക്കെയാണ്

ഇങ്ങനെ ഇവർ ഗവൺമെൻറ് ശരിയായ രീതിയിൽ ഇവിടെ ഉള്ള ആളുകൾ ഉൾനാടൻ പ്രദേശത്തുള്ള ആളുകളെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കുവാണെങ്കിൽ അവർക്ക് ഉന്നമനത്തിലേക്ക് കടന്ന് ചെല്ലാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ കന്നുകാലികളെ അതായത് ആട് ഫാം കോഴി ഫാം അങ്ങനെ ഉള്ള സംരംഭങ്ങളും ഉൾനാടൻ പ്രദേശത്തെ ജനങ്ങൾ തങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ ഉപയോഗിക്കുന്നുണ്ട് വ നടത്തിക്കൊണ്ട് പോവുന്നുണ്ട് അത് മുട്ടക്കോഴി ആഹ് ആകാം ചിലപ്പോൾ നാടൻ കോഴി ആകാം പൂവൻ കോഴി കുഞ്ഞുങ്ങൾ തന്നെ ആകാം അങ്ങനെ അതുവഴി ഈ അവർക്ക് വാർഷിക ലാഭം ലഭിക്കുകയും അവ പുതിയ കൂടുതൽ സംരംഭങ്ങളിലേക്ക് അവർ കടന്ന് ചെല്ലുകയും ചെയ്യുന്നു അതുപോല തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ക കർഷകരുടെ സൻ ചന്തകൾ അതായത് നമ്മുടെ സ്വന്തം വീട്ടുകളിൽ ഉപയോഗിച്ചിട്ട് ജൈവ പച്ചക്കറികൾ പച്ചക്കറി വസ്തുക്കൾ വിപണനം ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ മേഖലകളെ തങ്ങളുടെ കാർഷിക മേഖലയെ വർത്തമാനമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പാൽ വിറ്റും പശുവിൻ്റെ ആടിൻ്റെ ഒക്കെ പാൽ വിറ്റും ഇറച്ചി കച്ചവടം നടത്തിയുമൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഷിങ്ങ് വാഷിങ്ങ് ഐറ്റംസ് അതായത് സോപ്പ് ലായനി സോപ്പ് പൊടി ഈ ലോഷൻസ് അങ്ങനെ ഉള്ള ഐറ്റംസ് ചെറുകിട വ്യാപാരങ്ങളിലൂടെ സ്ത്രീകൾ നടത്തി അതിൻ്റെ ഉന്നമനത്തിലേക്ക് ഉന്നമനം അതിൻ്റെ ഉന്നമനത്തിലൂടെ അതിൻ്റെ വളർച്ചയിലൂടെ ഈ സ്ത്രീ ജനങ്ങൾ ഉന്നമനത്തിലേക്ക് എത്തുന്നുണ്ട്